പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി എട്ട് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്